ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ കോട്ടയം കാരിത്താസിൽ നിന്നു വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ഡോക്ടർ മീനയുടെ പേഷ്യന്റ് അല്ലേ ഒരു സ്കാനിംഗ്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ അതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കേ അപ്പോൾ നാളെ രാവിലെ ഒരു ഒൻപതു മാണി ആകുമ്പോളത്തെന് കോട്ടയം കാരിത്താസിലേക്ക് വന്നേക്കണേ അവിടെ ആ റിസപ്ഷിനിൽ വന്നാൽ മതി ഹോസ്പിറ്റലിലെ റിസപ്ഷിനിൽ വന്നാൽ മതി അവരോട് ചോദിച്ചാൽ മതി ഓക്കേ പേയ്മെൻറ്റിനെ കുറിച്ചെനിക്ക് കറക്റ്റ് അറിയില്ല അവിടെ റിസപ്ഷിനിൽ ചോദിച്ചാൽ അവര് പറയും ഓക്കേ രാത്രി പത്തുമണിക്കുശേഷം ഫുഡോന്നും കഴിക്കരുത് പിന്നെ ലൈറ്റ് ആയിട്ട് വെള്ളം കുടിക്കാം

റിപ്പോർട്ട് നാളെ ചെയ്താല് നാളെ കഴിഞ്ഞു രാവിലെ കിട്ടത്തുള്ളു ഓ കുഴപ്പം ഒന്നുമില്ല അത് കഴിഞ്ഞിട്ടും ഡോക്ടറെ കോൺസൾട്ടു ചെയ്യാം ഓക്കേ ഓക്കേ ഓക്കേ